എനിക്ക് ഇഷ്ടപ്പെട്ട പാട്ടുകൾ എന്ന് പറഞ്ഞാൽ മലയാളം ഗാനങ്ങളും അത് പോലെ തന്നെ ഹിന്ദി ഗാനങ്ങളും ഇഷ്ടമാണ് അത് സിനിമയുടേതാണെങ്കിലും പിന്നെ ഭക്തി ഗാനങ്ങളാണെങ്കിലും വളരെയേറെ ഇഷ്ടമാണ് കേൾക്കാന് റേഡിയോയിൽ കൂടെ കേൾക്കുന്നതാണ് കുറച്ച് കൂടെ നല്ലതെന്ന് തോന്നുന്നു കാരണം ടി വി ഓൺ ചെയ്തിട്ട് കൂടുതൽ സൗണ്ട് കുറച്ച് വെച്ചാൽ നമുക്ക് കേൾക്കാൻ സാധിക്കുന്നില്ല ഇപ്പോൾ ടീ വിയാണ് ആശ്രയിക്കുന്നത് മൊബൈലാണെങ്കിലും കൂടുതൽ നമ്മള് ഇത് വാട്ട്സപ്പ് ഓൺ ആക്കി നെറ്റ് ഓൺ ചെയ്തിട്ടാൽ മാത്രമേ മൊബൈലിൽ കൂടെ നമുക്ക് കേൾക്കാൻ സാധിക്കത്തുള്ളൂ അപ്പോൾ നെറ്റ് കൂടുതല് നമുക്ക് യൂസബിൾ ആയി കൊണ്ടിരിക്കും അത് തീരാൻ സാധ്യതയുണ്ട് പിന്നെ ടീവിയെയാണ് ഇപ്പോഴ് ആശ്രയിക്കുന്നത് നേരിട്ടിരുന്ന് കണ്ടാൽ ഒത്തിരി സമയം പോവും അതിനെയൊക്കെ അപേക്ഷിച്ച് നോക്കുമ്പോൾ റേഡിയോ വളരെയേറെ നല്ലതാണ് അതിലെ എഫ് എമ്മിലെയൊക്കെ ആണേലും പാട്ടുകളും മറ്റ് കാര്യങ്ങളൊക്കെ കേൾക്കാന് വളരെയേറെ ഇഷ്ട്ടമുണ്ട് അതാകുമ്പോൾ നമുക്ക് ഏത് സമയത്തും ഏത് സ്ഥലത്തും കൊണ്ട് പോയി വെച്ച് കേൾക്കാനും അത് പോലെ തന്നെ ഗാനങ്ങൾ വളരെയേറെ കേൾക്കുന്നതും വളരെയേറെ നല്ലതാണ് അത് ഒത്തിരി എനിക്ക് ഇഷ്ടമുള്ള തുമായ ഒരു കാര്യമാണ്